ഇപ്പോൾ സ്കൂളുകളിലൊക്കെ പഠിപ്പിക്കുന്നതൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും നമുക്ക് മലയാളം പഠിപ്പിക്കുന്നതിന് മലയാളം നമുക്ക് എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു ഭാഷയാണ് നമ്മളിപ്പം എവിടെ എങ്കിലും പോയി കഴിഞ്ഞാൽ തന്നെ നമുക് ഇപ്പോൾ ഒരു ബസിലെ ബോർഡ് വായിക്കണമെങ്കിൽ തന്നെ മലയാളം അറിഞ്ഞിരിക്കണം അപ്പം മലയാളം നമ്മളൊരു നല്ല രീതിയിൽ പഠിപ്പിക്കണം അപ്പം മലയാളം ഒരു ഒരു നല്ലൊരു ലാംഗ്വേജ് ആയിട്ടാണ് അവർ എടുത്തിരിക്കുന്നത് മലയാളം സെക്കൻഡ് മലയാളം ഫസ്റ്റ് ഇങ്ങനത്തെ രണ്ട് ലാംഗ്വേജ് സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് നമുക്ക് എന്തെയാലും ഇപ്പം പൊതുവെ ഇപ്പം അറിഞ്ഞിരിക്കേണ്ട ഒരു അവസ്ഥയാണ് കാരണം ഏത് ഏതൊരു ജോലി ചെയ്യണമെങ്കിലും ഏതൊരു സംസ്ഥാനങ്ങളിൽ പോവണമെങ്കിലും ഏതൊരു ഇപ്പോൾ നമുക്ക് ഇന്ത്യ വിട്ട് തന്നെ പുറത്തേക്ക് പോവണമെങ്കിൽ തന്നെ നമുക്ക് ഇംഗ്ലീഷ് അറിയാണ്ട് ഒരു കാര്യവും നടക്കില്ല അപ്പം ഇംഗ്ലീഷ് മെയിൻ ആണ് നമ്മള ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഇംഗ്ലീഷ് മെയിൻ ആണ് അപ്പോൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നുണ്ട് പിന്നെ ഇംഗ്ലീഷിൽ ഫസ്റ്റും സെക്കന്റും ഉണ്ട് പിന്നെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സയൻസ് ആണ് സയൻസ് നമുക്കെന്തായാലും ഒരു അനിവാര്യമായിട്ടുള്ള ഒരു ഘടകമായിട്ടാണ് മാറിയിരിക്കുന്നത് പിന്നെ ഹിന്ദി ഉണ്ട് സാമൂഹ്യപാഠം നമ്മുടെ അത് സ്ഥലങ്ങളെ കുറിച്ചും നമ്മുടെ പൂർവ്വികരെ കുറിച്ചും അങ്ങനത്തെ കാര്യങ്ങളക്കെ പഠിപ്പിക്കുന്നുണ്ട് ഈ കാര്യങ്ങളൊക്കെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്